ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യവും അവസരങ്ങളും നൽകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റഭിപ്രായം ഇന്ത്യയിൽ ഒരുപാട് കലാകരന്മാർ ഉണ്ടായിട്ടും അതിൻ്റെ അവരുടെ വാസനകൾ മോഡി പിടിപ്പിക്കാൻ വേണ്ടി ഒ ഒന്നും തന്നെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റു രാ സംസ്ഥാനങ്ങളോ ചെയ്യുന്നില്ല അവരുടെ കഴിവുകൾ എപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ് ഈ ഒര് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ചെയ്യപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങളിലാകട്ടെ നമ്മുട് നമ്മളൊരിന്ത്യക്കാർ ഇപ്പം മറ്റുള്ള രാജ്യത്ത് പോയിക്കഴിഞ്ഞാൽ അവരുടെ കലാ മികവ് അവര് പല രീതിയിലാണ് പുറത്തെടുക്കുന്നത് അത് കൂടാതെ തന്നെ ഒരിക്കൽ അത് കൂടാതെ തന്നെ ഒരിക്കൽ നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ മറ്റുള്ള പ്രമുഖർ മനസിലാക്കിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള അവസരങ്ങളും കാര്യങ്ങളും നൽകേണ്ടതാണ് പക്ഷേങ്കിൽ ഈ ഒര് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അവർ ഒന്നും തന്നെ അവരുടെ കഴിവുകൾ മിക പ്രൗഢി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ മികവ് തെളിയിക്കാൻ വേണ്ടി ഒര് പരിപാടിയും സംഘടിപ്പിക്കുന്നില്ല പിൻ രണ്ട് മൂന്ന് സംഘട സംഘടകൾ സംഘടനകൾ ഈ ഒര് പരിപാടി അല്ലേ മറ്റവരുടെ മികവിനെ കാണിക്കാൻ വേണ്ടീട്ട് പരിപാടികൾ സംഘടിപ്പിച്ചേക്കാം പക്ഷേങ്കിൽ ഒന്നും തന്നെ അവരുടെ കഴിവിനെ മോഡി കൂട്ടുന്നില്ലാന്നാണ് സത്യം ഇതിൻ്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ആരും തന്നെ തയ്യാറാവുന്നില്ല അവരുടെ കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും വലിയ കൊ കുഴപ്പം ഞാനിതിൽ കാണുന്നേ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താന്ന് വെച്ചാല് അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തന്നെ കലാകാരന്മാർ മുന്നോട്ടേക്ക് വരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് പണമായും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളുമായിട്ട് നമ്മളുടെ സർക്കാരോ അല്ലെങ്കില് മറ്റ് സംഘടനകളോ നൽകേണ്ടതാണ് ഇപ്പം അവരുടെ ജീവിതസാഹചര്യം അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കീട്ട് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നൽകേണ്ടതാണ് അല്ലാതെ പക്ഷം അവർ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട അവരുടെ കല മുന്നോട്ടേക്ക് വളരാതെ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പിന്നെ അവർക്ക് വേണ്ട ഓരോരോ സ്റ്റേജ് പരിപാടിയും നമ്മൾ കണ്ടെത്തി അവർക്ക് നൽകേണ്ടത എന്നാൽ മാത്രമേ അവരുടെ കലാപരമായ മികവുകൾ അല്ലേൽ കലാപരമായ സൃഷ്ടികൾ അവരിലേക്ക് അല്ലെൽ ജങ്ങളിലേക്ക് എത്ത എത്തിക്കാൻ പറ്റു എന്നാൽ മനസ്സി എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാവു ഇന്ന് ആൾക്ക് ഇന്ന് കലയുണ്ട് അപ്പ അവര് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഒരിക്കലും നമ്മളൊര് കലാകാരന്മാരെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവരെ പുച്ഛിക്കാനോ പാടില്ല അവർ ഒരു കലാന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈ